ഞാൻ കൂടുതലായിട്ടും എൻ്റെ ഒരു ഒഴുക്കിനൊത്ത് എഴുതുകയാണ് ചെയ്യാറ് എങ്കിൽ പോലും ഞാൻ ഒന്നു കൂടി ഒരു റിവിഷൻ പോലെ ചെയ്ത് എന്തെങ്കിലും തെറ്റുകളോ അല്ലെങ്കിൽ എന്തെങ്കിലും പോരായ്മകളോ ഉണ്ടെങ്കിൽ അത് കണ്ടു പിടിച്ചു ചില സമയങ്ങളിൽ റിവിഷനൊക്കെ നടത്തി എഡിറ്റൊക്കെ ചെയ്യാറുണ്ട് സാധാരണ ഞാൻ എന്താണ് എൻ്റെ മനസ്സിലേക്ക് വരുന്നത് ആ ഒരു രീതിയിലാണ് എഴുതിക്കൊണ്ട് പോകുന്നത് അത് തന്നെ ആണ് എല്ലാവർക്കും പൊതുവെ ഇഷ്ടവും ഇപ്പോൾ നമ്മൾ നമ്മുടെ സ്വന്ത സ്വന്തമായി നമ്മൾ അധികം എഡിറ്റിങ്ങുകളൊന്നുമില്ലാതെ നമ്മളെങ്ങനെയാണോ ആ രീതിയിലാണ് എഴുതി പോകുന്നത് അതാണ് മറ്റുള്ളവരിലേക്കും കൂടുതൽ എത്താനായിട്ടും സാധിക്കുക അപ്പോൾ എളുപ്പത്തിൽ മറ്റുള്ളവരിലേക്ക് എത്താനും നാം നമ്മുടെ രീതിയിൽ തന്നെ എഴുതി പോവുകയാണ് ചെയ്യുക ചെയ്യേണ്ടത് പിന്നെ എഡിറ്റിംഗ് എന്നു പറയുമ്പോൾ ചില കാര്യങ്ങളിൽ ഒരു പ്രത്യേകം ഇപ്പം എന്തെങ്കിലും ചില കാര്യങ്ങളിൽ മാത്രം റിവിഷൻ ചെയ്ത് എഡിറ്റിംഗ് ഒക്കെ ചെയ്യാറുണ്ട്